ആ ഹലോ ഞാൻ ബൊലേറോനെ കുറിച്ച് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു എനിക്ക് വണ്ടീനെ കുറിച്ചൊന്നും അറിയത്തില്ല

ഓക്കേ

ആ മാസമടവ് ഉണ്ടോ

ആ ഞാൻ നിങ്ങളെ ഷോറൂമിലേക്കു വരാം

ആ ഓക്കേ ഓക്കേ